ഇവിടെ എനിക്കറിയുന്ന തിയേറ്ററ്കള് പറഞ്ഞാലുള്ളത് മഞ്ചേരീയിലാണ് അവിടെ തന്നെ കൈരളിയും പിന്നെ ശ്രീദേവിയാണ് എനിക്കറിയുന്നത് പിന്നെ ഞാന് തിയേറ്ററില് പോയ ഒരാളൊന്നുമല്ല എനിക്കങ്ങനെ തിയേറ്റർല് പോയിട്ടറിവൊന്നുവില്ല ഞാനധികം വീട്ടിൽ ഇരുന്നാണ് കാണാറുള്ളത് പിന്നെ എനിക്കേറ്റവും കൂടുതലിഷ്ടം എന്താണ് ആശങ്ക വരുത്തുന്നതും പിന്നേ അതുപോലെ തന്നെ ഞാനാ കുറ്റകൃത്യങ്ങളന്വേഷിക്കുന്നതും പിന്നെ പഴേ സിനിമ പഴയ ചലച്ചിത്രങ്ങളൊക്കെ എനിക്ക് കൂട്തലിഷ്ടമാണ് ഇങ്ങനെ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് കുറ്റകൃത്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ചലചിത്രങ്ങളാണ് അതിലുള്ളതാണ് ജോൺ ലൂതേറ് ദൃശ്യം വണ്ണ് ടുവ് പിന്നെ ട്വൽത്ത് മാന് അതുപോലെ തന്നെ നേര് ഇങ്ങനെ കുറെ അറിയുന്ന ചലച്ചിത്രങ്ങള് ഉണ്ട് പിന്നേ എനിക്ക് ഞാനധികം അങ്ങനെ സിനിമ ഇഷ്ടപെട് ചലചിത്രം ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുവല്ലെങ്കിലും എനിക്കതിൽ ചെയ്യുന്ന ഓരോരുത്തരുടെ കഥാപാത്രങ്ങളൊക്കെ ഇഷ്ടമായിട്ട് തോന്നാറൊക്കെ ഉണ്ട് പിന്നേ ഞാന് എന്താ വീട്ടിലെ ആരെങ്കിലും ആരെങ്കിലും അടുത്തൊന്ന് കിട്ടണതാണ് അധികം കാണുക അല്ലാതെ ചലച്ചിത്രം ഇറങ്ങിയാൽ ഉടനെ ഒന്നും കാണാണ്ട് കാണലും കാണാറൊന്നുമില്ല ഞാന് അപ്പം അതാണെൻക്ക് ചലച്ചിത്രത്തിനെപ്പറ്റി പറയാനുള്ളത്